തീർച്ചയായിട്ടും സിനിമാമേഖലയിലെ വസ്ത്രധാരണ രീതി പൊതുവിൽ എല്ലാവരെയും വസ്ത്രധാരണ രീതിയെ സ്വാധീനിക്കാറുണ്ട് ഞാനും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ എങ്കിലും സിനിമയിൽ വസ്ത്രധാരണ രീതി അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല കൊള്ളാന്നും തോന്നിയിട്ടുമില്ല പിന്നെ ചില സിനിമയിൽ ചില ഡ്രസ്സ് അല്ലെങ്കിൽ ചില സാരി ഒക്കെ കാണുമ്പോൾ ഇത് കൊള്ളാമല്ലോന്ന് തോന്നും പിന്നീടത് ട്രെൻഡായിട്ട് ഇറങ്ങുമ്പം അപൂർവമായിട്ട് അത്തരം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അതല്ലാതെ ബോളിവുഡിലേം ടോളിവുഡിലേം ഫാഷനൊന്നും നമ്മൾ അങ്ങനെ നമ്മളുടെ നാട്ടിൽ അനുകരിക്കാറില്ല അതിനായിട്ട് ശ്രമിച്ചിട്ടുമില്ല പിന്നെ പൊതുവിലെ സിനിമയിലായാൽ കൂടി നമ്മൾ ഇച്ചിരി കൂടി നമ്മുടെ ഒരു കോൺസെപ്റ്റിലുള്ള നമ്മുടെ മാന്യത എന്ന് പറയണത് കോൺസെപ്റ്റ് ചേർന്നു വരുന്ന ഡ്രെസ്സുകളൊക്കെ നമുക്ക് ഇഷ്ടാകാറുള്ളൂ കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നതോ അല്ലെങ്കിൽ ഇച്ചിരി വൾഗറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതോ ഇച്ചിരി സെക്സിയായ ഡ്രസ്സോ അങ്ങനത്തെത് ഒന്നും നമുക്ക് ഇഷ്ടമാവുന്നതല്ല നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കാറുമില്ല സാധാരണ രീതിക്കുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ചിലത് അല്ല ഇപ്പം നമ്മൾ ഈ സ്ഥിരം യൂസ് ചെയ്യുന്ന കുർത്തയോ ചുരിദാറോ സാരിയൊ പോലുള്ളതിനകത്തെ പുതിയ പുതിയ സ്റ്റൈലുകൾ ഒക്കെ നമ്മൾ കാണും നമുക്ക് ഇഷ്ടപ്പെടാറുണ്ട് അത്തരം കാര്യങ്ങളും സ്വാധീനിക്കാറുണ്ട് അപ്പം അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ തയി കിട്ടിയ കൊള്ളാം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് പറ്റണത് പോലൊക്കെ റിക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അത്രേയുള്ളൂ എനിക്ക് തോന്നുന്നു വലിയ ഒരു സാമാന്യ ഇനത്തെ ഇതൊന്നും വലിയ കാര്യമായിട്ട് സ്വാധീനിക്കാറില്ല ഇനി അഥവാ കണ്ടാൽ തന്നെ പോപ്പുലറായിട്ട് അങ്ങനെ ചില കാര്യങ്ങൾ ഒക്കെ കാണും കാണണത് അവർ അനുകരിക്കാൻ ശ്രമിക്കും എന്നല്ലാതെ തീർച്ചയായിട്ട് അങ്ങനെ ബോളിവുഡിലേം ടോളിവുഡിലേയും നടിമാർ നടക്കണത് നടക്കണതോന്നും എൺപത് ശതമാനം ആളുകൾ വിചാരിക്കില്ല വിചാരിച്ചാൽ തന്നെ ഇത് പോസിബിളല്ല അത് കൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഈ പഴയകാല സിനിമകൾ ഒക്കെ ഒരു വിൻറ്റേജ് സിനിമാന്ന് ഈ കാലം പറയുന്ന സിനിമകൾ കാണാനാണ് ഇഷ്ടം അതിനകത്ത് അത്തരം ഫാഷണബിളായിട്ടുള്ള ഡ്രസ്സൊന്നും ഇല്ല നമുക്ക് പരിചിതമായ ഡ്രസ്സുകളൊക്കെ ഉള്ളൂ പിന്നെ ഈ കാലത്ത് പഴയ വസ്ത്രധാരണ രീതി ഇപ്പം ചട്ടയും മുണ്ടും അല്ലെങ്കിൽ മുണ്ടും നേരിയതൊക്കെ ഉടുക്കാന്നുള്ളത് ഒരു ഒക്കേഷണൽ വെയറാണ് ഫങ്ഷണൽ വിയറായിട്ടൊക്കെ മാറുന്നുണ്ട് ഞാൻ വലിയ താല്പര്യം തോന്നിയിട്ടില്ല പക്ഷേ ഒരു ചട്ടയും മണ്ടും പോലെയുള്ള പൈതൃകമായ വസ്ത്രധാരണ രീതികൾ ഒക്കെ ഇട്ട് അമ്മമാരെ കാണുന്നത് ഒരു ഭംഗി ഒന്നും ഒരിക്കലും സാരി ഉടുത്ത് അമ്മച്ചിമാരെ കാണുമ്പോൾ ഇല്ല സാരി ഉടുത്ത അമ്മച്ചിമാരെ കാണണം ചുരിദാറിട്ട യുവതലമുറയെ കാണുമ്പോൾ തോന്നാറില്ലേ ഒരു പക്ഷേ വരണ ഒരു ജെനറേഷൻ പാൻ്റ് ഷർട്ടും കുർത്തിയുമൊക്കെയിട്ട് മാറുമ്പം അത് അവർക്ക് ഇപ്പം നമുക്ക് ഇപ്പം ഈ കാലം പോലും മധ്യവയസ്കരിട്ട ഡ്രസ്സാണ് ചുരിദാറെന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടി യങ്ങായ ഒരു ജെനറേഷൻ പാൻ്റ്സും കുർത്തയൊക്കെയാണ് അതെല്ലാം യങ്ങായൊരു ജെനറേഷൻ സ്ലീവലസും ഫ്രോക്കും അങ്ങനത്തെ ഡ്രസ്സ്കളോടാണ് അവർക്ക് താല്പര്യം അത് കാണണം അത് കാണണം എന്ന് നമുക്ക് വലിയ വിരോധൊന്നും ഇല്ല കാരണം പൊതു തലമുറ അല്ല പൊതുവായിട്ടുള്ള ആളുകൾ അങ്ങനെ ഉപയോഗിക്കുന്നു നമ്മൾ അതിനെ അക്സെപ്റ് ചെയ്യാന്നുള്ളത് മടിയൊന്നുമില്ല നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അത്തരം വേഷങ്ങൾ കൊടുക്കാറുണ്ട് പക്ഷേ ഓവറായൊരു ഫാഷനായിട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല അത് ചെയ്യാറില്ല അത്രേയുള്ളൂ അല്ലാതെ നമ്മുടെ സിനിമയിൽ കാണണത് പോലെ ജീവിക്കണോന്നോ അത്തരം വസ്ത്രങ്ങൾ ഇണ്ടാക്കണോന്നോ വിചാരിച്ചിട്ടില്ല അപ്പോൾ അത്ര നല്ലതാണോന്ന് തോന്നിയിട്ടുമില്ല അതല്ലാതെ പൊതുവിൽ ഈ പറഞ്ഞതു പോലെ നമുക്ക് നല്ലത് എന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെയും പിന്നെ നമുക്ക് ട്രഡീഷണലായിട്ടുള്ള വേറെ ഡ്രസ്സുമായിട്ട് സംയോജിപ്പിച്ച് നമ്മൾ ഇപ്പോൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അത്രമാത്രമേ ഫാഷൻ അല്ലെങ്കിൽ രീതികളിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട പിന്നെ സ്വാഭാവികമായിട്ടും അതല്ലാതെ ഈ കാലങ്ങളിലും സോഷ്യൽ മീഡിയ പോപ്പുലറായപ്പോൾ നമുക്ക് ഡ്രസ്സിങ് മെറ്റീരിയൽസും ഡ്രസ്സിങ്സ്റ്റൈൽസും ഒരേപോലെ എല്ലാവർക്കും അത് പോപ്പുലറാണ് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ അത്തരം വേഷവിധാനങ്ങളും ഇപ്പം ഓൺലൈൻ പോർട്ടൽസിനൊക്കെ നമ്മൾ നോക്കും ഓൺലൈൻ സ്റ്റോറുകൾ വിസിറ്റ് ചെയ്യും അതിൽ കൊള്ളാവുന്ന ഫാഷൻ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഒക്കെ നമ്മൾ മേടിക്കും എല്ലാവരും അങ്ങനെ തന്നെയാണ് അതിനകത്ത് ഒരു പ്രായ വ്യത്യാസമോ ദേശ വ്യത്യാസമോ ഒന്നും ഈ കാലത്ത് ഉണ്ടെന്ന് തോന്നീട്ടില്ല